ഹലോ കൂന്താനം ഏജൻസി അല്ലേ ചേട്ടാ കാർ വാഷിൻ്റെ ഡീറ്റെയിൽസ് ഒന്നറിയാൻ വേണ്ടിയായിരുന്നത് ചേട്ടാ ഒരു ഇന്നോവ ആയിരുന്നു അപ്പം നമ്മൾ ഇതിന് അപ്പോയി അപ്പോയിൻ്റ്മെൻറ്റിനു പ്രത്യേകിച്ചു നേരത്തെ എടുക്കണോ ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെ അത് ഓക്കെ ആ ആ ആ അപ്പം ഈ ആഴ്ചത്തേയ്ക്ക് സമയം കാണുമോ ആ ബുധനാഴ്ച ബുധനാഴ്ച ബുധനാഴ്ചത്തേയ്ക്ക് ഓക്കെയാണോ ആ ഓക്കേ ആ ഓക്കെ ഓക്കെ ഓക്കേ ആ ഫുൾ ഫുൾ വാഷ് ഫുൾ വാഷ് ആയിരുന്നു ചേട്ടാ അപ്പം നമ്മൾ ഫുൾ വാഷെന്നു പറഞ്ഞാൽ നമുക്കെത്ര ഒരു മണിക്കൂർ പിടിക്കുമോ ഒന്നര മണിക്കൂർ പിടിക്കുമല്ലേ ഓ ഓക്കെ ഓക്കെ ഓക്കെ ആഹ് ഹാ ഹാ ഇല്ല ഫുൾ വാഷ് ഫുൾ വാഷാണ് ചേട്ടാ കാരണം നമ്മുടെ വണ്ടിയല്ലേ നമ്മുടെയൊരു കസിനാണ് അവനിവിടെ വെച്ചിട്ടു പോയതാണ് അപ്പം നോക്കണമെന്നു പറഞ്ഞാണ് പോയത് ആളിപ്പം ഇവിടില്ല ചേട്ടാ അപ്പം ഫുൾ വാഷ് വരുമ്പം എത്രയാണ് നമുക്ക് റേറ്റ് വരുന്നത് സെവൻ സെവൻ ഫിഫ്റ്റിയാണ് അല്ലേ നമുക്ക് പിക്കപ്പ് സർവ്വീസ് ഉണ്ടോ അതോ നമ്മൾ തന്നെ കൊണ്ട് തരണോ വണ്ടി ഓഹ് ഇല്ല അല്ലേ ആഹ് ഹാ ഹ അവിടെ ടയർ മാറ്റത്തില്ലേ വണ്ടിയുടെ ബാക്സൈഡിലെ ടയറും കൂടെയൊന്ന് ചേയ്ഞ്ച് ചെയ്യണമായിരുന്നേ ആ ഇതിൻ്റെ ടൈമിംഗ് എത്ര മണിയാണ് രാവിലെ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണെന്നു പറയാമോ ആഹ് ഹാ ഓക്കേ എന്നാൽ ശരി ചേട്ടാ താങ്ക് യൂ